ആ ഓക്കേ എന്ത് എന്ത് ഫ്ലവേഴ്സാണ് വേണ്ടത് ആ ഓക്കേ നമ്മൾക്ക് ഏതൊക്കെ കളേഴ്സാണ് വേണ്ടത് റോസസിൻ്റെ ഞങ്ങൾ ഇവിടെ റെഡ് യെല്ലോ റോസ് ഉണ്ട് പിന്നെ വൈറ്റൂണ്ട് ആ ഉവ്വ് ഉവ്വ് ഓരോ കളറിനും ഓരോ ചേയ്ഞ്ചസ് ഉണ്ടാവും അവരുടെ റേയ്റ്റിൽ അല്ലാതെ രീതിക്ക് വ്യത്യാസങ്ങളുണ്ടാവും വൈറ്റിന് റെഡിനേക്കാളും ക റച്ച് കൂടുതലായിരിക്കും

ആ കിട്ടും കിട്ടും കിട്ടും മുല്ലപ്പൂവിൻ്റെ പെർ കിലോ വരുന്നത് ലൈക്ക് ഫൈവ് ഹണ്ട്രഡ് ആണ്

ആ ആ ആ വരും വരും ആ അത് ലൈക്ക് നമ്മൾക്ക് ഇന്ന ഫിക്സഡ് റേറ്റ് പറയാൻ പറ്റില്ല ചിലപ്പോൾ നാളെ ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും അങ്ങനെ ഫിക്സഡ് റേയ്റ്റ് വരുന്നില്ല ഇപ്പോൾ ലൈക്ക് ഒരു അഞ്ച് കളറ് പറഞ്ഞോളൂ അതിന് ഇപ്പോൾ നമ്മൾ ഒരു ആയിരം വച്ച് നോക്കുകയാണെങ്കിൽ ഒരു അയ്യായിരം വരും ആ പ്ലസ് ആ അങ്ങോട്ട് കൊണ്ട് തരണോ ഞങ്ങൾ ആ അപ്പോൾ അതിനനുസരിച്ച് ലൈക്ക് റേയ്റ്റ് ലൈക്ക് ഞങ്ങൾ ഒരു വൈകിട്ടൊക്കെ ആവുമ്പോഴേക്ക് ഞങ്ങൾ പറയുമ്പോൾ കാരണം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതില്ലേ കാരണം ഡൈ ചെയ്ത് വരുന്നു പിന്നെ ലൈക്ക് എന്നാണ് പ്രോഗ്രാം വരുന്നത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഒരു മാർച്ച് ട്വൻറ്റി സെവൻത്തിന് ഒന്നും കൂടി ഒന്ന് വിളിച്ച് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി ആ അയച്ച് തരാം അയച്ച് തരാം ഓക്കേ ഓക്കേ വെൽക്കം